ഞാനൊരു ഡ്രൈവറായിട്ടാണ് പോകുന്നത് ഇടയ്ക്ക് ഞാൻ ഓട്ടോറിക്ഷ ഓടിക്കും പിന്നെ ഇടയ്ക്ക് ലോറിയിൽ പോകും ഇതൊക്കെയാണ് എൻ്റെ സ്ഥിരം വരുമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ഓട്ടോയിൽ പോകുന്നതിൻ്റെ കാരണം എന്നുവച്ചാൽ ഡെയ്ലി നമുക്ക് പൈസ കിട്ടും അതായത് ഇപ്പം ഒരു ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരം രൂപയ്ക്ക് ഓടിയാലും ഇരുന്നൂറ് രൂപേന്റെ എണ്ണ അടിച്ച് കഴിഞ്ഞാലും ബാക്കി കയ്യിലുണ്ടാകും അതാണ് ഞാൻ ഓട്ടോറിക്ഷയിൽ പോകാനുള്ള ഒന്നാമത്തെ കാരണം പിന്നെ ആരുടേയും ഉപദേശമോ ഇപ്പം നമ്മളിപ്പം ഏതെങ്കിലും ഒരു ഓഫീസ് ജോലി ചെയ്യുകയാണെങ്കിൽ അവരുടെ ആരുടെയെങ്കിലും തെറിയോ ചീത്തയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കേൾക്കണം നമുക്ക് പിന്നെ ഇതൊന്ന് ആ ഇതാണെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു ഇതും ഇല്ല നമ്മൾക്ക് വേണമെങ്കിൽ പോയാൽമതി ഇല്ലെങ്കിൽ പോവണ്ട അതുകാരണം ഇതാണ് കുറച്ചൂകൂടി ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ലോറിയിൽ പോയിക്കഴിഞ്ഞാൽ ലോങ്ങായിട്ട് പോയി കഴിഞ്ഞാലാണ് പൈസ കിട്ടുക പക്ഷേ ലോങ്ങ് പോകുമ്പോൾ നമ്മൾക്കിപ്പം ഭക്ഷണം മര്യാദയ്ക്ക് കഴിക്കാൻ പറ്റില്ല പിന്നെ ഫുഡ്ഡ് ചിലപ്പോൾ വച്ചുണ്ടാക്കി കഴിക്കേണ്ടിവരും പിന്നെ ബാത്ത് റൂമിൽ പോകാനുള്ള ബുദ്ധിമുട്ട് ഇതൊക്കെ ഉള്ളതുകൊണ്ടാണ് ഞാൻ ലോറിയിൽ അധികം പോകാത്തത് ഓട്ടോറിക്ഷയിൽ പോകുന്നതായിരിക്കും കുറച്ചൂകൂടി നല്ലതായിട്ട് എനിക്ക് തോന്നിയത് കാരണം എന്നുവച്ചാൽ രാവിലെ വേണമെങ്കിൽ പോയാൽ മതി വേണ്ടെങ്കിൽ വേണ്ട നമുക്ക് ഇഷ്ടമുള്ള സമയത്ത് പോകാം ആരും ഒന്നും പറയില്ല ഇതാണ് എൻ്റെ ഉപജീവനമാർഗ്ഗം